എൻ്റെ മകളുടെ ബർത്ത് ഡേ പാർട്ടിയാണ് അപ്പോൾ അതിലേക്ക് നമുക്കൊരു ഫുഡ്ഡ് ഓർഡർ ചെയ്യാനുണ്ട് നൂറ് ഫുഡ്ഡിൻ്റെ ആവശ്യമാണുള്ളത് അപ്പോൾ അതിൾ എന്താണെന്നു വച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഹൃത്തുക്കളും ഫാമിലി മെമ്പേഴ്സും എല്ലാം കൂടി നൂറ് പേരായിരിക്കും ഉണ്ടാവുക അതിൽ ഭക്ഷണം നമ്മൾക്ക് വൃത്തിയായിട്ട് സെർവ്വ് ചെയ്യാൻ കഴിയണം എല്ലാ ഐറ്റംസും ഉണ്ടായിരിക്കണം നമുക്കൊരു പന്ത്രണ്ടര ആകുമ്പോഴത്തേനുവാണ് സാധനങ്ങൾ എത്തിച്ചു തരേണ്ടത് പന്ത്രണ്ടര ടൈമാവുമ്പോഴത്തേനും നമുക്ക് സാധനങ്ങൾ എത്തിക്കണം ഉച്ചയ്ക്ക് പന്ത്രണ്ടര ആവുമ്പഴാണ് നമുക്ക് നമ്മുടെ ഓഡിറ്റോറിയത്തിലേക്ക് സാധനങ്ങൾ എത്തേണ്ടത് പിന്നെയെന്നു വച്ചാൽ ഫുഡ്ഡ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കണം നല്ല ടേസ്റ്റിയായിരിക്കണം പിന്നെ മാക്സിമം നിങ്ങളുടെ എത്രയാണോ ഒരു ഫുഡ്ഡിന് വരുന്നത് അതിൻ്റെ ഡിസ്ക്കൗണ്ട് കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് കാര്യങ്ങൾ സെർവ്വ് ചെയ്ത് തരാൻ പറ്റുന്ന ഒരു ഏജൻ്റായിരിക്കണം നമുക്ക് വേണ്ടത്